ഇത് ആപ്കോ ഹോണ്ട മലപ്പുറം കാർ ഷോപ്പല്ലേ എനിക്ക് എനിക്ക് ഹോണ്ടയുടെ ഒരു സിവിക്ക് നോക്കാനായിരുന്നു ആ ഹോണ്ട സിവിക്കാണ് വേണ്ടിയിരുന്നത് അതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് എനിക്ക് ഗ്രീന് ഏതൊക്കെയാണ് ഒന്നുകൂടിയും പറയാമോ ആ എനിക്ക് വൈറ്റാണ് വേണ്ടിയിരുന്നത് ആ ഞാന് ഷോപ്പിലേക്ക് തന്നെ വരാം എപ്പോഴാണ് വരേണ്ടത് അഞ്ച് മണി എന്നാല് നാളെയൊരു ഉച്ചയ്ക്ക് ആ ഓക്കെ നാളെ എന്നാല് ഒരു ഉച്ചയ്ക്ക് ഞാനങ്ങോട്ട് വരാം ഇതിന് മൈലേജൊക്കെ എങ്ങനെയാണ് പതിനഞ്ചല്ലേ പിന്നെ ഇല്ലില്ലാ ഓൺ റോഡ് പൈസയൊക്കെ എങ്ങനെയാണ് വരുന്നത് പിന്നെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ എങ്ങനെയാണ് എത്ര വര്ഷം കൂടുമ്പോഴാണ് ഏകദേശം നല്ല പിന്നെ ഇത് പെട്രോൾ ഡീസൽ രണ്ടും ഉണ്ടാവില്ലേ പെട്രോൾ ഡീസല് ആ ആ ഓക്കെ ഓക്കെ എന്നാല് നാളെ ഞാന് ഉച്ചയ്ക്ക് വരുന്നുണ്ട്